ഹലോ കുട്ടപ്പാ പിന്നെ നമ്മൾക്ക് സിനിമയ്ക്ക് പോയാലോ ഇന്ന് ഇന്ന് റിലീസ് ആവുന്ന ഒരു പടമുണ്ട് പ്രാവൻകൂട് ഷാപ്പ് എന്നു പറഞ്ഞിട്ടുള്ളത് അടിപൊളി പടമാണ് നല്ല റിവ്യൂ ആണ്

അടിപൊളി പടമാണ് നല്ല അടിപൊളി റിവ്യൂ ആണ് ആരാണ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിക്കോളൂ

നിങ്ങളെത്ര മണിക്കാണ് ഫ്രീ ആവുക അല്ലെങ്കിൽ എപ്പോഴാണ് സമയമുള്ളതെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പത്തരേൻ്റെ ഷോ ആണോ അല്ലെങ്കിൽ ഏഴരേൻ്റെ ആണോ

ആ നിങ്ങൾ നോക്കിയിട്ട് പറ എന്നിട്ട് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ടിക്കറ്റ് വേഗം ബുക്കായി പോകുന്നുണ്ട് സീറ്റ് കുറവാണ്

ഓക്കേ ആ എന്നാൽ നോക്കിയിട്ട് വിളിക്ക് കേട്ടോ എത്ര മണിയാണ് നോക്കിയിട്ട്